ഇപ്പോൾ കഴിഞ്ഞ ഏതാണ്ടും ഏതാനും പ പതിറ്റാണ്ടികളായിട്ട് നമ്മൾ കൂടുതലായിട്ടും ഇന്ത്യയിൽ ഉയർന്ന് വന്ന ജോലിയെന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ യൂട്യൂബർമാരാണ് കൂടുതലായിട്ടും ഉയർന്ന് വന്നുകൊണ്ടിരിക്കുന്നത് അവർക്കിന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പുറമെനിന്നുള്ള റെവന്യൂ കാര്യങ്ങളൊക്കെയാണ് കിട്ടുക അവരതൊരു വരുമാനമായിട്ടൊക്കെയാണ് എടുക്കുന്നതും അപ്പോൾ അത് നല്ല രീതിയിൽ അവർ കൊണ്ടു പോകുന്നും ഉണ്ട് ചിലർ മോശമായ രീതിയിലും കൊണ്ട് പോവുന്നുണ്ട് അവർക്ക് നല്ല രീതിയിലുള്ള വരുമാനം കിട്ടുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ തന്നെ നല്ലൊരു കാശ് കാര്യങ്ങളൊക്കെയാണ് മെയ്നായിട്ട് അവർക്ക് കിട്ടുന്നത് വേണമെങ്കിൽ പറയാം പിന്നെ കുറേ ആൾക്കാർ കൺടെൻറ്റ് ക്രിയേറ്റർ അങ്ങനത്തെ പല രീതിയിലുള്ള കാര്യങ്ങൾ അവരും ചെയ്യുന്നുണ്ട് പിന്നെ ഈ യുട്യൂബിൽ തന്നെ സഞ്ചാരികൾ ഇഷ്ടം പോലെ ഉണ്ട് അവരിന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഈ ലോകം മൊത്തം സഞ്ചരിച്ചിട്ട് അതിൻ്റെ യുട്യൂബ് ബ്ലോഗറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടും ഇടുന്നുണ്ട് അപ്പം അതൊക്കെ നല്ല രീതിയിൽ അവർ ചെയ്യുന്നുണ്ട് പിന്നെ ഹാസ്യ നടന്മാർ ഇഷ്ടം പോലെ ഉണ്ട് നമുക്ക് നമ്മളെ ചിരിപ്പിക്കുകയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ വലിയൊരു കാര്യമാണ് അപ്പോൾ അത് നല്ല രീതിയിൽ ഹാസ്യ ന നടന്മാർ കൂടുതലായിട്ടും നമ്മുടെ സിനിമയിലൊക്കെ വന്നിട്ടുണ്ട് അപ്പം അത് നല്ലൊരു മുന്നേറ്റമായിട്ടാണ് കാണുന്നത് ഇന്ത്യയിലെ ചെറുപ്പക്കാർ കൂടുതലായിട്ടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ടും ചെയ്യുന്നത്